ഞാൻ കൃഷി ഓഫീസറാണെ അപ്പോൾ നിങ്ങളുടെ ഒരു പോളിസിയുണ്ടെ വിള ഇൻഷുറൻസിൻ്റെ അതൊന്നു മറ്റാൻ വേണ്ടിയാണെ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കർഷകൻ നേരത്തെ വിളയുടെ അടച്ച രസീതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റുണ്ട് വരണം അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ പേ പേപ്പർ വർക്കൊക്കെയുണ്ട് അപ്പതൊക്കെ ചെയ്തു തീർക്കണം പിന്നെ നിങ്ങളെ മാറ്റാൻ ധാതാവായതുകൊണ്ട് നിങ്ങളെ മാറ്റാൻ ശ്രമിക്കണം പിന്നെ പുതിയ പോളിസി കമ്പനിയായിരിക്കുന്ന നിങ്ങൾക്ക് വാർഷികവരുമാനമായിട്ട് അൻപതിനായിരം എൺപതിനായിരം രൂപ കിട്ടും അപ്പം വി ഇപ്പം നല്ല വിത്തെടുത്തിട്ട് നമുക്കൊരു മൂന്നുകിലോയൊക്കെ കിട്ടുമല്ലൊ അതിനനുസരിച്ചിപ്പം നിങ്ങൾക്ക് ലക്ഷങ്ങളൊക്കെ കൈമാറാൻ സാധിക്കും അതുപോലെതന്നെ എന്തുവാ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സേവനം കൊണ്ട് അതുമാത്രമല്ല പെ എത്രയും പെട്ടെന്നു മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പം വരുന്ന തലമുറയ്ക്ക് ഡിജിറ്റൽ യുഗമായതു കൊണ്ടു തന്നെ നമുക്കു പെട്ടെന്നു മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഭയങ്കര പഷ് കഷ്ടപ്പാടായിരിക്കും പിന്നെ സംഭവിക്കുന്നത് അതുപോലെതന്നെ നിങ്ങളുടെ കൃഷി സ്ഥലത്തിനൊന്നും ഒരു കുഴപ്പവും വരുത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ പേരിൽ നിന്നാണ് എന്താ നമ്മുടെ സ്ഥലം പോകുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുപോലെതന്നെ എന്താ പറയുക ദാത് നിങ്ങൾ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നതു കൊണ്ട് നിങ്ങൾക്കൊരു അതിപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയത്തില്ലെ ഇങ്ങനെ ഇതില്ല സേഫ്റ്റിയില്ല അതൊന്നും പറ്റത്തില്ലയെന്നു ഞങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണത് ചെയ്യുന്നത് അതുപോലെതന്നെ പോളിസി കൈമാറാൻ നിരവധി രേഖ ആവശ്യമുണ്ട് പിന്നെ എത്രയും പെട്ടെന്നു കൊണ്ടു വരികയാണെങ്കിൽ അതു നല്ലതായിരിക്കും കാരണം കഷ്ടപ്പാടാണ് എത്രയും പെട്ടെന്ന് കൊണ്ടന്ന് മാറ്റിക്കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമുക്ക് രണ്ടിനും നല്ല ഗുണങ്ങളിതിലൂടെ സംഭവിക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് ദോഷഫലങ്ങളൊന്നും ഉണ്ടാകത്തില്ല എത്രയും പെട്ടെന്ന് മാറുന്നതായിരിക്കും നമ്മുടെ രണ്ടിൻ്റെയും ഇതിനു നല്ലത് പിന്നെ വരുമ്പോൾ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡങ്ങനത്തെ കോപ്പികൾ കൊണ്ടുവരാം പിന്നെ പാടശേഖരത്തിൻ്റെ കോപ്പി നിങ്ങൾക്കെത്ര ഏക്കറുണ്ട് എത്ര സ്ഥലമുണ്ട് അവിടെ നിന്ന് സാധാരണ കിട്ടുന്ന നെല്ലിൻ്റെ വരി നെല്ലിൻ്റെ തൂക്കം എത്ര ചാക്ക് കയറ്റുന്നുണ്ട് അങ്ങനെ സംബന്ധമായ വിവരങ്ങളടങ്ങിയ കടലാസ് രേഖകളൊക്കെയായിട്ട് വരണം പിന്നെ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെന്നുള്ളൊരു രേ ഒരു പേപ്പർ അതിനകത്ത് നിങ്ങളുടെ ഒപ്പ് നിങ്ങളുടെ ദാ എന്തുവാ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ നിങ്ങൾക്കാരാണോ നിങ്ങളെ പാടശേഖരണത്തിന് പാട്ടു നിൽക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഒപ്പും അങ്ങനെ ആവശ്യമായ രേഖകളെല്ലാം ഇതിനായി കൊണ്ടുവരേണ്ടതാണ് കേട്ടല്ലോ